നമ്മുടെ നാട്ടിൽ വിവിധ തരത്തിലുള്ള സ്റ്റാമ്പുകളുണ്ട് പഠനകാലങ്ങളിൽ ഒക്കെയാണെങ്കിലും സ്കൂളുകളിൽ നിന്ന് സ്റ്റാമ്പുകൾ ശേഖരിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു കുട്ടികൾക്ക് സ്റ്റാമ്പുകൾ നൽകും പത്ത് പൈസ ഇരുപത് പൈസയൊക്കെ വില വാങ്ങിച്ച് കൊണ്ട് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാനായിട്ട് ഇങ്ങനെ സ്റ്റാമ്പുകൾ കൊടുക്കുന്നു ആ സ്റ്റാമ്പുകൾ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നു ഒരു സ്റ്റാമ്പ് ശേഖരണം തന്നെ ഉണ്ടാക്കാറുള്ള ഒരു ഉത്സാഹം ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് ഇന്ന് സ്റ്റാമ്പുകളിൽ വിവിധ തരം പ്രശസ്ത വ്യക്തികൾ വിശുദ്ധരെ അങ്ങനെ വിവിധ തരത്തിലുള്ള സ്റ്റാമ്പുകൾ നമുക്ക് ലഭ്യമാകാറുണ്ട് ഇപ്പോൾ സ്റ്റാമ്പുകൾ ദുർലഭമായികൊണ്ടിരിക്കയാണ് എന്നാലും പഴമയുടെ പുതുമ എന്നപോലെ പഴയ കാലത്തുള്ള സ്റ്റാമ്പുകളൊക്കെ സൂക്ഷിച്ച് വെക്കുന്നവരും അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഇളം തലമുറക്ക് കാണിച്ച് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരും കാണിച്ച് കൊടുക്കുന്നവരും ഒക്കെ ഇന്നും ഉണ്ട് അതുപോലെ നാണയങ്ങൾ ആണെങ്കിലും ആദ്യ കാലങ്ങളിൽ എല്ലാം ചക്രം എന്ന അറിയപ്പെടുന്ന ഒരു നാണയമായിരുന്നു ആദ്യമേ കൊടുക്കൽ വാങ്ങലുകളായിരുന്നു അത് കഴിഞ്ഞ് ചക്രമായി അത് കഴിഞ്ഞ് പിന്നെ നാണയങ്ങളിലോട്ടും ഒരു ഒരു പൈസ രണ്ട് പൈസ അഞ്ച് പൈസ പത്ത് പൈസ എന്ന കണക്കിൽ ഇരുപത് പൈസ ഒക്കെ വരെയുള്ള മൂല്യമുള്ള നാണയങ്ങൾ ഉണ്ടായി നാണയങ്ങൾ ഇപ്പം അൻപത് പൈസ വരെയുള്ള നാണയങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അൻപത് ഒന്ന് മുതൽ അൻപത് വരെയുള്ള നാണയങ്ങൾ എല്ലാം ഗവൺമെൻറ്റ് പിൻവലിച്ച് ഒരു രൂപ തൊട്ട് മുതലുള്ള പൈസ ആണ് ഇപ്പോൾ നാണയങ്ങളാണ് ഇപ്പോഴുള്ളത് നിലവിൽ ഉള്ളത് അതും നമ്മൾ പണ്ടത്തെ പൈസകളൊക്കെ സൂക്ഷിച്ച് വെച്ച് ഇളം തലമുറക്ക് കാണിച്ച് കൊടുക്കുവാൻ ഒക്കെ ഒരു വൻശേഖരം തന്നെയുള്ള കുടുംബങ്ങൾ ഇപ്പോഴും ഉണ്ട് അങ്ങനെ എല്ലാം നല്ല രീതിയിൽ സ്റ്റാമ്പ്കൾ നാണയങ്ങളും ഒക്കെ ശേഖരിച്ച് ആളുകൾ ഹോബി ആയി അത് സൂക്ഷിച്ചു വെക്കുന്നു അതുപോലെ തന്നെ കല്ലുകൾ പലതരത്തിലുള്ള കല്ലുകൾ വിവിധ നദികളിൽ നിന്ന് ശേഖരിക്കുന്നത് അതുപോലെ ഒഴുകി ഒഴുകി പല ആകൃതിയിലും രൂപഭാവ രൂപങ്ങളിലും ഒക്കെ ആയിട്ടുള്ള കല്ലുകൾ ശേഖരിച്ച് വെക്കുക അതും ഒരു ഹോബി തന്നെയാണ് ആളുകൾക്ക് പലതരത്തിലുള്ള അലങ്കാര വസ്തുക്കളായിട്ടും വില ഏറിയ മുത്തുകളായിട്ടും വജ്രമായിട്ടും ഒക്കെ കല്ലുകൾ രൂപപ്പെട്ട് രൂപപ്പെടുത്തി എടുത്ത് സൂക്ഷിക്കുന്ന പ്രവണതയും സർവസാധാരണമായിട്ട് കണ്ടുവരുന്നുണ്ട് എല്ലാം ഇന്ന് കുട്ടികൾ എല്ലാം ഈ വക കാര്യങ്ങളിൽ നിന്നെല്ലാം വളരെ അകലങ്ങളിലാണ് ഇന്നത്തെ തലമുറ അവർക്ക് യൂട്യൂബ് അതുപോലുള്ള ഫോണിൽ ഉള്ള വിവിധ സംവിധാനങ്ങളോടാണ് താല്പര്യം സ്റ്റാമ്പ് ശേഖരിക്കാനോ കല്ല് ശേഖരിക്കാനോ പഴയ നാണയങ്ങൾ നാണയങ്ങൾ ശേഖരിക്കാനോ ഒന്നും അധികം ഉത്സാഹം കാണിക്കുന്നവർ അധികം ഇല്ല എല്ലാവരും അവരവരുടെ ലോകങ്ങളിൽ പുതിയ പുതിയ കാര്യങ്ങളും ആയിട്ടങ്ങനെ മുന്നോട്ട് പോകുന്നു ഇന്ന് കളിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കുമായിട്ട് ആണ് കുട്ടികൾ അധികം സമയം ചിലവഴിക്കുന്നത് ഇളം തലമുറയെ പഴമയിലേക്ക് ഇന്ന് തിരികെ കൊണ്ട് വരണമെങ്കിൽ പഴമക്കാരായിട്ടുള്ള ആളുകൾ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള നാണയങ്ങളോ അതുപോലെ കല്ലുകളോ സ്റ്റാമ്പുകളോ ഒക്കെ പുതിയ തലമുറയ്ക്ക് കാണിച്ച് കൊടുക്കാനും അവരെക്കൂടി ഈ ഇങ്ങനെ സ്റ്റാമ്പ് ശേഖരണത്തിലേക്കും കല്ല് ശേഖരണത്തിലേക്കും നാണയ ശേഖരത്തിലേക്കും ഒക്കെ ആകർഷിച്ച് കൂട്ടികൊണ്ട് വരുവാനും നമുക്ക് ശ്രമിക്കാവുന്നതാണ് എല്ലാം നല്ലൊരു നാളേക്ക് വേണ്ടി ഇതെല്ലാം ശേഖരിച്ച് വെച്ച് എല്ലാവർക്കും പഴമയെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാൻ ഉള്ള ഒരു അവസരമായി ഇത് വിനിയോഗിക്കാം